ഇപ്പോൾ ജല മലിനീകരണം എന്നൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന സമയങ്ങളില് നമ്മളിപ്പോൾ കുറെ നേരം ഇരിക്കണം ഇപ്പം ചൂണ്ടയൊക്കേ ഇട്ടിട്ട് പിടിക്കുന്ന സമയമാണെങ്കിൽ കുറെ നേരം ഇരിക്കണ്ട ഒരവസ്ഥയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മള് കൂടുതലായിട്ടും ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മള് കൂടെ കൊണ്ടുപോകാറുണ്ട് അപ്പം അത് നമ്മള് എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കേ നേരേ എടുത്തിടുന്നത് പുഴയിലേക്കാണ് നല്ല രീതിയിലുള്ള ജല മലിനീകരണവും കാരണങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നേ നഞ്ചിൻകായ് അങ്ങനത്തെ കായൊക്കേ നമ്മള് കലക്കിയിട്ടും മീൻ പിടിക്കാറുണ്ട് അപ്പം ജല മലിനീകരണം നന്നായിട്ട് ഉണ്ടാകാറുണ്ട് ഇതൊക്കേ എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് ഇതൊക്കേ ഞാന് കണ്ടിട്ടും ഉണ്ട് കൂടുതലാൾക്കാരും അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പായാനുള്ളത്